ആരാണ് വിളിക്കുന്നത്

അത് ശരി അത് എന്തിനാണ് നിങ്ങൾ വിളിച്ചത് ഇത് പറയാൻ വേണ്ടിയാണോ വിളിച്ചത് ആ ആ ആ ആ അ ആ അപ്പോൾ നിങ്ങളിത് എവിടാണ് നിങ്ങളുടെ സ്ഥലമിത് എവിടാണ് ആ അതെപ്പം എങ്ങനെയാണ് എവിടാണ് അത് ഇടവഴിയാണോ എതിർഭാഗത്താണോ റോഡിന്റെ സൈഡ് സൈഡാണോ എങ്ങനെയാണത് സ്ഥലം എവിടാണ് മഞ്ചേരിൽ ഇറങ്ങീട്ട് പോന്ന് പിന്നെ അതിൽ കോളേജിന്റവട്ന്ന് എങ്ങോട്ട് പോകണം നമ്മൾ അവിടെന്ന് വിളിച്ചേ ഉള്ളാ ആ ആ ആദ്യത്തെ വീടേതാ ബിജൂന്റെ വീടിന്റെ അടുത്താണോ തൊട്ടടുത്താണ് ആണോ അപ്പം എന്നാൽ നിങ്ങളെവിടാണ് എവിടാണ് ടൂർന് പോകുന്നത് എവിടാ യൂ ക്കേലാണോ പോകുന്നത് അത് ശരി ഏതേലും ട്രാവൽസ്സേലാണോ പോകുന്നത് ആ ആ അത് ശരി എന്തൊക്കയാണ് അപ്പം എങ്ങനെയാണ് പെര പൂട്ടി ഇതക്കെ ആയിട്ടാണോ പോണത് അതോ ഇതാക്കല്ലേ പിന്നെ ആ പിന്നെ ആ ആ ആ പിന്നെ ഞാനത് ഞാൻ ഇപ്പം എങ്ങനാണ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ഇടക്ക് വല്ലോക്കെ പോകുമ്പം മഞ്ചേരീടതിലേ ഞങ്ങൾ കയറി കറങ്ങുമ്പം ആ ഭാഗത്ത് ഞങ്ങൾ നോക്കി എല്ലാം നോക്കി അന്വേഷിച്ചൊക്കെ വെക്കാം കേട്ടോ നമ്മളത് എങ്ങനെയാന്നുള്ളതും ആ അപ്പം പിന്നവിടെ ചെക്ക് ഞാൻ ചെയ്തോളാം കേട്ടോ അരൊക്കെ വന്നതിന് നോക്കി ഇടക്കിടക്ക് വരാം എപ്പോഴും വരാൻ പറ്റില്ല എന്ന്വെച്ചാൽ നമുക്ക് നല്ല തിരക്കുള്ള ഒരു പോലീസ് ഓഫീസറാണ് അപ്പം എനിക്കതിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ അതനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് പോവാൻ അപ്പം ഞാനത് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ ഇപ്പം അയ്യോ വേണ്ട വേണ്ട എനിക്ക് ക്യാഷ് വേണ്ട വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിത്തന്നെ സുരക്ഷിതമായിട്ട് ഇരുന്നോട്ടെ കേട്ടോ പോകുമ്പം അങ്ങ് കൊണ്ടോക്കോ അതായിരിക്കും ഒന്നുംകൂടെ നല്ലത് ഇടക്ക് ഞങ്ങൾ പോയി ചെക് സ്ഥലങ്ങളൊക്കെ ചെക്ക് ചെയ്തോളാം കേട്ടോ നിങ്ങളെ സ്ഥലോം പരിസരങ്ങളൊക്കെ അപ്പം ഞങ്ങളത് ചെയ്തിട്ട് നോക്കിക്കോളാം അപ്പം അത് അല്ല നിങ്ങൾ പോയിട്ട് വാ നന്നായിട്ട് യാത്രയക്കെ ചെയ്ത് ഉല്ലസിക്ക് ഉല്ലസിക്കാൻ പോകുന്നതല്ലേ അപ്പം നിങ്ങളൊന്ന് കറങ്ങിത്തിരിഞ്ഞ് നന്നായിട്ട് വാ അപ്പം ഞങ്ങൾ നോക്കിക്കോളാം ഓ വേണ്ട വേണ്ട അതിപ്പം നിങ്ങൾ വിളിക്ക്വോ നിങ്ങളുടെ നമ്പരുമൊക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങളിടക്ക് വേണ്ട വേണ്ട അപ്പം ഞങ്ങൾക്കത് അത് വേണ്ട വേണ്ട നമുക്ക് അവിടെന്ന് പഠിത്തമുണ്ടല്ലോ ഞങ്ങളവിടെ ഇടക്കാ വഴിയൊക്കെ പോകുന്നതല്ലേ അപ്പം ഞങ്ങൾ പോകുമ്പം ഞങ്ങളാ സ്ഥലമൊക്കെയൊന്ന് ഇത് ചെയ്തങ്ങ് നോക്കിക്കോളാം അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് അറിയിക്കണ്ടറിയിക്കണ്ട ഇപ്പം നിങ്ങളേപ്പോലെ ഞങ്ങളന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം പിന്നെ അതനുസരിച്ച് ഞാൻ അവരോടും അവർക്കും കൂടെ കൊടുത്തേക്കാം അപ്പം ഞങ്ങടാൾക്കാരും അവിടുണ്ടല്ലോ അപ്പം അവരോട് ഞങ്ങൾ പറഞ്ഞേക്കാം ഇന്നപോലെ പോയിരിക്കാന്നും ഇന്നതാന്നും നമ്പരക്കെ പറഞ്ഞ് കൊടുത്ത് ആ അത് കുഴപ്പമില്ല ആ അത് തന്ന നമ്മളവിടെ ആൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊന്നും കൂടിച്ചിരീടെ നിങ്ങളിപ്പം പോകുന്നത് കൊണ്ട് നമ്മൾ ഇവിടെന്ന് അപ്പോൾ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം കേട്ടോ രാത്രി പേടിക്കുവൊന്നും വേണ്ട ആ ശരി എന്നാ ഓക്കേ ഓക്കേ ആയിക്കോട്ടെ